ഇപ്പഴത്തെ ഒരു സാഹചര്യം നോക്കുവാണെന്ന് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് എടുക്കുന്ന കോഴ്സ്ന്ന് പറയുന്നത് ബി എസ് സി നയഴ്സിങ് തന്നെയാണ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഇടക്കാലം കൊണ്ട് അത് അധികമായിട്ടും കൂടിയിട്ട് ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വച്ചാൽ കൂടുതൽ ജോലി സാധ്യതയുള്ളത് അല്ലെങ്കിൽ ജോലി നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ്ന്ന് പറയുന്നത് കോഴ്സ് തന്നെയാണ് ബി എസ് സി നയഴ്സിങ് ഇപ്പം എന്നെ സംബന്ധിച്ചടത്തോളം എനിക്ക് നഴ്സിംഗ് ഇഷ്ടമല്ല എന്നൊരു ഇതിൽ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ നേഴ്സിങ് എടുത്തില്ല പക്ഷേ ഞാൻ എടുത്തൊരു കോഴ്സ് കൊണ്ട് എനിക്ക് ആ ഒരു കോഴ്സ് റിലേറ്റഡായിട്ടൊരു ജോലി കിട്ടാൻ കിട്ടാനോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു പ്രാവീണ്യം നേടാനോ ഒരു ഒരു കരിയർ ബിൽഡ് ചെയ്യാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പം ആൾക്കൾ കൂടുതലായിട്ട് പറയാറും ഉള്ളതും നിലവിൽ കാണാറുള്ളതും എന്താന്ന് വെച്ചാൽ ബി എസ് സി നേഴ്സിങ് എന്നൊള്ള കോഴ്സ് തന്നെ സ്റ്റുഡൻസ് എടുക്കുന്നതാണ് കാരണം കോഴ്സ് കംപ്ലീറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ തന്നെ ജോലിക്കോ വലിയ സാധ്യതകൾ ജോലി സാധ്യതകളൊണ്ട് എന്നിരുന്നാൽ പോലും വിദേശത്തൊക്കെ ആണേലും ഒത്തിരി ഏറെ ജോലി സാധ്യതകൾ ഉണ്ട് ഇപ്പം ബി എസ് സി നേഴ്സിങ് നേഴ്സിംഗ് പ്രൊഫഷണൽസിന് മാത്രമല്ല അല്ല ഇപ്പം ഇപ്പം കെയർ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സിംഗ് കോഴ്സുകളും ഒക്കെ ആൾക്കാർ തെരഞ്ഞെടുക്കുന്നൊണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഏത് സാഹചര്യത്തിലാണേലും ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എടുക്കുന്ന കോഴ്സ്ന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംങ്ങാന് ഇപ്പം വിദേശത്ത് പോയാലും നല്ല സാലറിയൊണ്ട് ഇപ്പം ഐ ൽ ടി സി പാസ്സാകണന്നൊരു കടമ്പ അല്ലാതെ വേറൊരു ബുദ്ധിമുട്ട് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നില്ല നഴ്സിങാണെങ്കിൽ കുട്ടികൾക്ക് ജോലി സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് പിന്നെ അവരുടെ കരിയറ് ബിൽഡ് ചെയ്യാനൊക്കെ ആ കുത്തിട്ട് അങ്ങനെക്ക നോക്കുമ്പം വളരെ നമുക്ക് സാധ്യത ഉള്ളൊരു കോഴ്സ്ന്ന് പറയുന്നത് ഈ ഒരു ബി എസ് സി നേഴ്സിംഗങ് തന്നെയാണ് കാരണം എന്താന്ന് വെച്ചാൽ പിള്ളേർ പിള്ളേർക്ക് പിള്ളേരുടെ ഭാവി സെറ്റിലാവും എന്ന ഒരു നമ്മൾ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റും ഇപ്പം ഏതൊരു പിള്ളേരാണ് അൽപ്പം കഷ്ടപ്പെട്ടക്കെയാണ് നമ്മളെ പഠിപ്പിച്ച് പെരൻറ്റ്സ് പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ അവർ കുടുംബം രക്ഷിക്കാനല്ലേ നോക്കോളും അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ സാഹചര്യം വരണ സമയത്ത് എന്ന ആ അ അത്തരം സാധ്യതകൾ ഉള്ള കോഴ്സ് തെരഞ്ഞെടുക്കാനേ എന്നാന്ന് പറഞ്ഞാലും എല്ലാവരും ശ്രമിക്കോളു അപ്പം എനിക്ക് തോന്നിയിട്ട് ഉള്ളത് ബി എസ് സി നേഴ്സിംഗാണ് അത്തരത്തിൽ സാധ്യത കൂടുതൽ ഉള്ള കോഴ്സ്ന്നാണ് അപ്പം പിള്ളേർക്ക് ജോലി കിട്ടുന്ന കേസിനാണേലും ഒക്കെ എനിക്ക് തോന്നിട്ടുള്ളത് ബി എസ് സി നഴ്സിങ് വളരെ നല്ല ഒരു കോഴ്സാണെന്നാണ് ഈ കാരണത്താൽ ഒക്കെ തന്നെ അതായത് ജോലി സാധ്യതകൾ കൂടുതൽ ഉള്ളത് കൊണ്ടും കുടുംബ രക്ഷപ്പെടും എന്നത് കൊണ്ടും എന്താണ് ബി എസ് സി നേഴ്സിംഗാണ് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞടുക്കുന്ന കോഴ്സ് ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്തോണ്ടോ പി ജി എടുത്തോണ്ടോ ഒക്കെ പി ജി ഒക്കെ ഉണ്ടായിട്ടും വെറുതെ ഇരിക്കുന്ന ഒത്തിരി ഏറെ ആളുകളെ അറിയും അപ്പം അത് ആ സാഹചര്യത്തിൽ ഒരു ജോലി നേടുക കരിയർ ബിൽഡ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ മുന്നേറുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബി എസ് സി നേഴ്സിംഗെന്ന് പറഞ്ഞൊരു കോഴ്സ് വളരെ നല്ലത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയും വരും കാലങ്ങളിൽ സ്റ്റുൻസ് ആ ഒരു റിലേറ്റഡുള്ള കോഴ്സുകൾ തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് തോന്നിട്ടും ഉള്ളത്